ഗ്രാമീണ നഗര അധ്യാപന രീതികളെക്കുറിച്ച് സംസാരിക്കുക ആണെങ്കിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ് വരുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് വളരെ അധികം ഡിഫ ഡിഫ്രൻറ്റും വ്യത്യസ്തവുമാണ് എന്നുള്ള കാര്യങ്ങൾ ഏറെ വ്യക്തമാണ് ഇന്നീ ലോകത്ത് മനുഷ്യർ വളരെ അധികം എജ്യുക്കേറ്റഡും വിദ്യാസമ്പന്നനുമായ വിദ്യാസമ്പന്നൻമാരാവാനും അവർ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നഗര അധ്യാപന രീതികളോടാണ് അവർ ഏറ്റവും കൂടുതൽ അതായത് ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നും നഗര പ്രദേശങ്ങളിലോട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് പോലും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു വളരെ അധികം വ്യത്യാസങ്ങൾ നമുക്ക് ഗ്രാമീണ തര തലത്തിലുള്ള വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തിലും നഗര വിദ്യാഭ്യാസത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ലോകത്തെ ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യ മാതാപിതാക്കൾ ആണെങ്കിലും അവരുടെ മക്കൾ ആണെങ്കിൽ പോലും ഗ്രാമീണ വിദ്യാഭ്യാസ രീതികളെക്കാളും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതും നഗര അധ്യാപന രീതികളോടാണ് നഗരങ്ങളിൽ ഇംഗ്ലീഷ് മാത്സ് സയൻസ് എന്നിവ എല്ലാം ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കുമ്പോൾ ഗ്രാമീണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് മിക്കതും മലയാളം മാതൃഭാഷയിൽ തന്നെ ആയതു കൊണ്ട് പുറം രാജ്യങ്ങളിലോട്ടും കേരളത്തിന് പുറത്തോട്ടുള്ള നാടുകളിലോട്ട് ആണെങ്കിൽ പോലും അവർക്ക് പോവാൻ വളരെ അധികം ബുദ്ധിമുട്ടാവുന്നു ഇത്രയും അധികം വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർ ഗ്രാമീണ തലത്തിലുള്ള അധ്യാപക രീതി അദ്ധ്യാപന രീതികളിൽ കൂടുതൽ മാറ്റങ്ങൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനായിട്ട് അവർ പല രീതികളിലുള്ള സ്ട്രൈക്സുകളും ഒക്കെ നടത്തുക ആണെങ്കിൽ പോലും അവർക്ക് വേണ്ടി വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ ലഭിക്കാനാവാത്തത് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ സർക്കാർ ആണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ വിലകൾ കൊടുക്കാത്തതായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വ്യത്യാസങ്ങൾ വരുന്നത് എന്നും വരാതിരിക്കുന്നത് എന്നും ഇത്രയും വ്യത്യാസ വ്യത്യാസങ്ങൾ വരാനായിട്ട് പലരും പല രീതികളിലും ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവർ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാത്തതായിട്ടും ഒരു വലിയ ഒരു റീസണായിട്ട് മാറുന്നു വലിയ ഒരു കാര്യമായിട്ട് മാറുന്നു എന്തുകൊണ്ട് ഈ നാട്ടിൽ ഒരു മാറ്റം വരാത്തത് എന്നത് ഇത്രയും വലിയ മാറ്റങ്ങൾ വരാനായിട്ട് നാട്ടുകാൾ നാട്ടുകാർ ആണെങ്കിൽ പോലും സ്വന്തം മക്കളെ പുറം രാജ്യങ്ങളിലോട്ട് വിടുന്നു പുറം രാജ്യങ്ങളിലോട്ട് വിടുന്നത് ഇന്ന് ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തോട്ട് പോകാനിരിക്കുന്ന നിസഹായവസ്ഥ ഇന്ന് നമുക്ക് നമ്മുടെ ലോകത്ത് കാണാനായിട്ട് സാധിക്കുന്നു